ഇവിടെ വയറിളക്കം വരുമ്പോൾ നമ്മളിങ്ങനെ കൂവപ്പൊടി കാച്ചി കുടിക്കലാണ് കൂടുതലും ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് കൂവപ്പൊടി കാച്ചിട്ട് വയറിളക്കം വരുമ്പോൾ അത് കാച്ചി കുടിക്കുക പിന്നെ ഒ ആർ എസ് കലക്കിട്ടുള്ളത് വെള്ളം കുടിക്കും പിന്നെ കട്ടൻചായയിൽ കുറച്ച് ചെറുനാരങ്ങാ പിഴിഞ്ഞിട്ട് അത് കുടിച്ചാലും ഈ വയറിളക്കത്തിനുനൊക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനയും ചെയ്യും പിന്നെ ഇങ്ങനെ നമ്മൾ കട്ടിയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല ഭയങ്കര ചെറിയ ചെറുതങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര സുഖമായിരിക്കും പിന്നെ ഈ നമുക്കീ വയറിളക്കം വരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ വയറിളക്കം വരുമ്പോൾ അപ്പോൾ നമ്മൾ ചെറു ഇത് എളന്നത്തിൻ്റെ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും ഒരു ക്ഷീണമൊക്കെ നമുക്കങ്ങനെ മാറും അപ്പോൾ അതൊക്കെയാണ് ഈ നാട്ടിൽ കൂടുതലായിട്ടും ഇങ്ങനെ വയറിളക്കം വരുമ്പോൾ ചെയ്യുന്നത് നാട്ടു വൈദ്യങ്ങൾ പിന്നെ ഒ ആർ എസ് ഒക്കെ കാച്ചി കുടിച്ചാൽ തന്നെ സുഖമായിരിക്കും അതൊക്കെയാണ് കൂടുതലും ഒ ആർ എസ് കലക്കി കുടിക്കുക പിന്നെ കൂവപ്പൊടി കാച്ചി കുടിക്കുക അതൊക്കെയാണ് ചെയ്യുക അതുതന്നെയാണ് കൂടുതലും